പാടാനായിട്ട് ദിവസത്തിൽ അങ്ങനെ സമയമായിട്ടൊന്നുമില്ല ഏത് നേരവും ഞാൻ പാട്ടു കേൾക്കും എനിക്ക് എന്തു ജോലി ചെയ്യുമ്പോൾപോലും പാട്ട് കേൾക്കണമെന്നു ഭയങ്കര ആഗ്രഹമാണ് അത് അതു കേട്ടിട്ടാണ് ഞാൻ ജോലിയൊക്കെ ചെയ്യാറ് അതുകൊണ്ടുതന്നെ എനിക്ക് പാട്ടിനോട് വലിയ ഇഷ്ടം തന്നെയാണ് അതുപോലെ ആ പാട്ട് പഠിക്കാൻ ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല പക്ഷെ പാട്ട് കേട്ട് കേട്ട് ഞാൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ ഓരോ വരികൾ എഴുതിവച്ച് എന്ത് എന്തൊക്കെയാണ് ആ വരിയിൽ ഒരു മീൻ ചെയ്യുന്നത് അതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ എഴുതി പാട്ട് എഴുതിയതാര് പാടിയതാര് അങ്ങനെ പാട്ടിനെപ്പറ്റി ഒരുപാട് ഞാൻ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട് കാരണം എനിക്ക് പണ്ടുതൊട്ടേ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു പാട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല എന്നാലും ഇപ്പോൾ കേട്ട് പഠിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എനിക്ക് പാട്ടിലെ മെലഡി സോങ്ങ്സിനോടാണ് കൂടുതൽ ഇഷ്ടം പിന്നെ വിധുപ്രതാപ് ഹരിശങ്കർ അവർ ഇവരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് അവരെയൊക്കെ സോങ്ങ് കേൾക്കുമ്പം തന്നെ മനസ്സിനെന്തോ എന്തെല്ലോ ഒരു കുളിർമഴ വരും അപ്പോൾ എനിക്ക് ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഒരസൂയ പോലെയൊക്കെ തോന്നാറുണ്ട് പിന്നെ എനിക്ക് പാടാൻ പറ്റിയില്ലല്ലോ ഇതുപോലത്തെ ഒരു വോയിസ് എനിക്ക് കിട്ടിയില്ലലോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് എന്നാലും പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ഹോബീസെന്ന് പറയുന്നത് തന്നെ ഞാൻ പാട്ടു കേൾക്കുന്നതാണ് എന്തിനായാലും പോലും അറ്റ്ലീസ്റ്റ് ഉറങ്ങാനാണെങ്കിൽപ്പോലും എനിക്കിപ്പോൾ പാട്ടില്ലാതെ പറ്റാത്ത ഒരവസ്ഥയാണ് അത്രയും എനിക്ക് പാട്ടിനോട് വലിയ കാര്യമാണ് പിന്നെ ഒരുപാട് എന്താ പറയുക പാട്ട് പാട്ട് ആർക്കാ പാട്ട് ഇഷ്ടമല്ലാതിരിക്കുക അതുപോലെതന്നെ എനിക്കും വലിയ ഇഷ്ടമാണ്